ഈ പ്രദേശത്ത് മതപരമായിട്ടുള്ള അവധി ദിവസങ്ങളും ആചാരങ്ങളും ആഘോഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഓണം വിഷു ഈദ് ക്രിസ്മസ് അതൊക്കെയാണ് ഇവിടെ അവധി ദിവസങ്ങൾ വരുന്നത് ഓണം എന്ന് പറയുന്നത് ഓണം ആവട്ടെ വിഷു ആവട്ടെ രണ്ടും വരുന്നത് ഹിന്ദു മത ആചാരത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് ഓണം എന്നു പറയുന്നത് അത്തപ്പൂക്കളം ഇടുന്നതും മാവേലിയെ വരവേൽക്കുക അതൊക്കെയാണ് അതിൻ്റെ ഐതീഹ്യം അതുപോലെ തന്നെ വിഷു എന്ന് പറയുന്നത് കൃഷ്ണനെ ആദരിക്കുന്നതും അതുപോലെ തന്നെ കൃഷ്ണൻ്റെ കൃഷ്ണനെ കണി കാണുക പടക്കങ്ങൾ പൊട്ടിക്കുക അതൊക്കെയാണ് വിഷുവിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈദ് മുസ്ലീം പരമായിട്ടുള്ള ആചാരാനുഷ്ഠാനമാണ് അതുപോലെ തന്നെ ക്രിസ്മസ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ജന്മദിവസം അത് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളാണ് ഈ ഒരു അനുഷ്ഠാനങ്ങളിലൊക്കെയാണ് ഈ പ്രദേശത്ത് അവധി ദിവസങ്ങൾ കിട്ടുന്നത്